എന്നെ എന്നിട്ട് ഞാൻ സ്കൂളിൽ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ കൂട്ടുകാര് എന്നെ ഒരുപാട് വായിക്കാന് എന്നെ പ്രചോദിപ്പിച്ച ഒരു പുസ്തകം വെച്ചാൽ പുസ്തകമാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന പുസ്തകം അതാരാണ് എഴുതിയതെന്നോ അത് എന്താണെന്നോ അല്ലെങ്കിലത് വായിച്ച് കുറച്ച് ഭാഗം മാത്രമെ ഞാനത് വായിച്ചിട്ടുള്ളൂ എനിക്കതിനെപ്പറ്റി ഒന്നും എനിക്ക് മനസ്സിലായില്ല മനസ്സിലായതേയില്ല പക്ഷെ ആ പുസ്തകം എന്നെ എന്റെ കൂട്ടുകാരെല്ലാവരും പറഞ്ഞു അത് നല്ല പുസ്തകമാണ് അതു വായിക്കാൻ നല്ല നല്ല രസമാണ് പക്ഷെ എനിക്കത് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല ഞാനത് വായിക്കാതെ ഇരുന്നു പക്ഷെ എനിക്കതാരാണ് എഴുതിയതെന്ന് പോലും ഇപ്പം എനിക്കത് ഓര്ക്കാൻ കഴിയുന്നില്ല അത്രയ്ക്ക് താല്പ്പര്യവില്ലാതെയാണ് ഞാനതിന്റെ ഓരോ അധ്യായങ്ങളും വായിച്ചു തീര്ത്തത് പക്ഷെ പൂര്ത്തിയാക്കാനും എനിക്കതിന് സാധിച്ചില്ല ആ വായനകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലെന്ന് മനസ്സിലായപ്പോൾ ഞാനത് വായന നിര്ത്തി അതുപോലെതന്നെ ചെമ്മീനെന്ന പുസ്തകവും എനിക്ക് വായിക്കണമെന്ന് താല്പ്പര്യമേ ഇല്ലാതെയാണ് ഞാൻ വായിച്ചത് ഈ പുസ്തകങ്ങളൊന്നും തന്നെ എന്റെ ജീവിതത്തില് എനിക്കൊരു സ്വാധീനം ഉണ്ടാക്കാത്ത തരത്തിലുള്ള പുസ്തകങ്ങളായതുകൊണ്ട് ഞാന് അത് രണ്ടും വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത് ഈ ഈ പുസ്തകങ്ങളെ പുസ്തകങ്ങള് വായിച്ച് കുറച്ചെങ്കിലും വായിച്ച് തീര്ന്നപ്പോള് എനിക്കുണ്ടായ ഒരു ഒരു തരത്തിലുമുള്ള എനിക്കത് മനസ്സിലാക്കിയെടുക്കാന് ആ പ്രായത്തില് എനിക്കത് സാധിച്ചിരുന്നില്ല എന്റെ കുഞ്ഞു പ്രായത്തിലാണ് കൂട്ടുകാര് എന്നെ നിര്ബന്ധിച്ചത് ഈ പുസ്തകം വായിക്കൂ എന്നു പറഞ്ഞ് അവർ എനിക്ക് ലൈബ്രറി സ്കൂളിലെ ലൈബ്രറിയിൽ നിന്നെടുത്ത് തന്നതാണ് ഈ ഖസാക്കിന്റെ ഇതിഹാസം എന്ന പുസ്തകം അത് അന്ന് കുഞ്ഞു പ്രായത്തിലാണ് അതെനിക്ക് ബാലരമയും വായിച്ച് നടക്കുന്ന പ്രായത്തില് ഇത്രയും വലിയൊരു സാഹിത്യരചന എന്റെ കയ്യിൽ തന്നപ്പോൾ എനിക്കതൊന്നും മനസ്സിലാക്കാന് എനിക്കത് പറ്റിയില്ല പക്ഷെ ഒരു പക്ഷെ ഇന്നത് വായിച്ചിരുന്നെങ്കില് ഞാനതിനെപ്പറ്റി കൂടുതല് മനസ്സിലാക്കുമായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു ആ പ്രായത്തിൻ്റേതായൊരു പക്വതക്കുറവിൽ എനിക്ക് ആ പുസ്തകം വായിക്കാനോ അല്ലെങ്കില് അതിനെ എന്തെങ്കിലും എനിക്കത് മനസ്സിലാക്കി വായിച്ചതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കിയെടുക്കാന് സാധിക്കാത്തതുകൊണ്ടാണ് എനിക്ക് പുസ്തകം ഞാനത് നിരുത്സാഹപ്പെട്ടത് ആ പുസ്തകത്തില് നിന്നും എനിക്കൊന്നും എനിക്കൊന്നും മനസ്സിലാക്കിയെടുക്കാന് സാധിച്ചില്ലെന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തമായ യുക്തിപരമായ ഒരു അഭിപ്രായം എന്നാൽ എന്റെ അത് ആ ആ പ്രായത്തില് ബാലരമ കളിക്കുടുക്ക എന്നൊക്കെ തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ വായിച്ചു നടന്നു നടന്ന പ്രായത്തില് ഒരുപക്ഷെ എനിക്ക് ഖസാക്കിന്റെ ഇതിഹാസം പോലെയൊക്കെ ഉള്ള വലിയ സാഹിത്യരചനകളൊക്കെ കിട്ടിയപ്പോൾ എനിക്കത് മനസ്സിലാക്കാനോ അതിനെപ്പറ്റി വായിക്കാനോ ഒന്നും എനിക്കാക്ക് ആ പ്രായത്തിൻ്റേതായൊരു രീതിയിൽ എനിക്ക് പറ്റിയില്ല എന്റെ കൂട്ടുകാരൊക്കെ ഒരുപാടെന്നെ നിര്ബന്ധിച്ചിട്ടുണ്ട് ലൈബ്രറിയിൽ നിന്നെടുത്തു തന്ന പുസ്തകമാണ് നീ വായിക്കു വായിക്കൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ അവരൊരുപാട് നിര്ബന്ധിച്ചു പക്ഷെ ഞാനത് വായിച്ചാൽ വായിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ കുറച്ച് പേജുകൾ മാത്രമേ വായിച്ച് പക്ഷെ വായിച്ചുള്ളു പക്ഷെ ഇപ്പം എനിക്കതിനെപ്പറ്റി ഒന്നും ഓര്മ്മയില്ല അതാരാണ് എഴുതിയതെന്നുപോലും എനിക്കറിയത്തില്ല എനിക്കത് താല്പ്പര്യമില്ലാതെ വായിച്ചത് കൊണ്ടായിരിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം